നമ്മടെ സ്കൂളുകളിലെ കുട്ടികളൊക്കെ ബസ്സേല് സ്കൂൾ ബസ്സേല് സാധാരണ ബസ്സേല് ഓട്ടോയില് വാനേലൊക്കെ ആണ് യാത്ര ചെയ്യുന്നത് ചെറിയ ചെറിയ കുഞ്ഞു റോഡുകൾ വഴി ആണു യാത്ര ചെയ്യുന്നത് അല്ലാതെ ഒന്നും വിദ്യാഭ്യാസം എന്നു പറയുന്നതു പോരാ കേരളത്തിനു വെളിയിലും ഇന്ത്യക്കു പുറത്തുമൊക്കെ നല്ല വിദ്യാഭ്യാസവും നിലവാരവുമുണ്ട് പക്ഷേ ഇവിടുത്തെ വിദ്യാഭ്യാസം എല്ലാവർക്കും സാക്ഷരത ഉണ്ടെന്നല്ലാതെ വിദ്യാഭ്യാസത്തിനു വലിയ നിലവാരം കൊടുത്തു മുന്നോട്ടു പോകാത്ത ആൾക്കാരാണ് എന്താണന്നറിഞ്ഞുകൂടാ സഞ്ചാര മാർഗ്ഗങ്ങള് നടന്നൊക്കെ പണ്ടു പോകുമായിരുന്നു പക്ഷെ ഇപ്പോള് പിള്ളേരെ അങ്ങനെ ഒറ്റയ്ക്കു വിടാനോ ഒന്നും സാധിക്കുകയില്ല പണ്ടത്തെ റോഡുകള് വലിയ പേടിക്കാനോ ആരെയും പിടിച്ചുകൊണ്ടുപോകുമെന്നോ തട്ടിക്കൊണ്ടു പോകുമെന്നുള്ള ഭീഷണിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോള് അങ്ങനെയൊന്നുമല്ല ഇപ്പോള് പോവുന്ന വഴിക്കു പിള്ളേരെ കാണാതെ ഒരുപാട് പോകുന്നുണ്ട് പിന്നെ എം ഡി എം എയുടെ ഉപയോഗം അത് എല്ലാ രക്ഷകർത്താക്കള്ക്കും പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ് അതുകൊണ്ടു പിള്ളേരുടെ സ്വഭാവങ്ങള് നശിച്ചുപോകാനും ചാൻസുള്ളതുകൊണ്ട് എല്ലാവരും മാക്സിമം സ്കൂൾ വണ്ടിയിലും പിന്നെ അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന അടുത്തുള്ള ദൂരം കുറവുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെയാണു വിടുന്നത് ഗതാഗത സൗകര്യങ്ങള് മോശമാണ് പറഞ്ഞാല് എന്നെന്നുമല്ലേലും കുറച്ചു ദൂരത്തിനാണേലും കൂടുതൽ പൈസ കൊടുക്കണം ദൂരക്കൂടുതലാണെങ്കിലും ഒരു നിശ്ചിത തുകയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ വാങ്ങിക്കുന്നത് എല്ലാ കാര്യത്തിനും ഭയങ്കര ചെലവാണ് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ആ പിന്നെ സാധാരണ സ്കൂളുകളിൽ പൈസ കൊടുക്കേണ്ടാത്തതുകൊണ്ടു വണ്ടിക്കൂലി മാത്രം കൊടുത്തു പറഞ്ഞുവിടാനും സാധിക്കും വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ആ മോശപ്പെട്ട ഇടുങ്ങിയ വഴികളിലൊന്നും ബസ്സ് വണ്ടിയൊന്നും കൊണ്ടു നിർത്തിയീപ്പിള്ളേരെ ഇറക്കിവിടുകയില്ല മെയിൻ റോഡ് വരെ നമ്മള് നടന്നുകൊണ്ടുവിട്ടിട്ടു വേണമേ പ്രത്യേകം ഫീയും കൂടെ അടയ്ക്കാന് അതൊക്കെയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലാതെ വച്ചുനോക്കുമ്പോള് വലിയ കുഴപ്പമില്ലാതെ പോകാം പിന്നെ ഫീസ് കൊടുക്കുകയും വേണം അതിൻ്റെ കൂട്ടത്തില് അവിടെ ഇവിടെയെല്ലാം കൊണ്ടുവിടുകയും ചെയ്യണമെന്നു പറയുന്നതും വലിയ വണ്ടി ചെറിയ റോഡിലെത്താത്തതുമൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീലെയ്യാറുണ്ട് വേറെയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഫീലെയ്യാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണു ബുദ്ധിമുട്ടായിട്ടു തോന്നുന്നതും അവസ്ഥ എന്നു പറയുന്നതും ആ പിന്നെ മെയിൻ റോഡിലൊക്കെയാണു നമ്മള് താമസിക്കുന്നതെങ്കിലും നമ്മുടെ സൗകര്യത്തിന്നുസരിച്ചു പറഞ്ഞൊക്കെ വിടാം പക്ഷെ അ പിന്നെ വേറെ അന്യ സംസ്ഥാനക്കാരെ പേടിച്ചിട്ടു ജീവിക്കാൻ മേലാത്തൊരവസ്ഥയും കൂടെയുണ്ട്